പാലക്കാട് രണ്ടു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ഒന്ന് മലമ്പുഴയും രണ്ട് കോട്ടമൈതാനവും സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെക്കേഷൻ സമയങ്ങളിൽ ഈ രണ്ടു സ്ഥലങ്ങളാണ് പൊതുവേ സന്ദർശിക്കാറുള്ളത് പ്രകൃതിഭംഗിയും ചരിത്രവും നിറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണ് മലമ്പുഴ അവിടെ പല കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട് പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ മലമ്പുഴ ഡാമും വെള്ളച്ചാട്ടവും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചിൽഡ്രൻസ് പാർക്കും അവിടെയുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കാവ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അവിടെ പ്രകൃതിയാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത് പിന്നെ അതിൻ്റെ അടുത്തൊരു തടാകവും ഉണ്ട് പിന്നെ മലമ്പുഴ ഡാം കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഒരു രണ്ടാമത്തെ സ്ഥലം പറയുന്നത് കോട്ടമൈതാനം അതിനും ഒരുപാട് ചരിത്രമുണ്ട് ടിപ്പുസുൽത്താൻ പണിഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെയും ഇതേപോലെ കുട്ടികൾക്ക് കാണാനും കളിക്കാനും നിറയെ സ്ഥലങ്ങളുണ്ട് ഗാർഡനുകളുണ്ട് വാക്കിംഗ് സ്പോട്ട് ഉണ്ട് നിറയെ മരങ്ങളുമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനും വളരെ ഭംഗിയാണ് ഏറ്റവും പ്രസിദ്ധമായ രണ്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് പല പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്ന് സന്ദർശിക്കാറുണ്ട് വെക്കേഷന് ഞങ്ങളും സ്കൂൾ അടച്ചാൽ അങ്ങോട്ടാണ് ആദ്യം സന്ദർശിക്കാറുള്ളത് വളരെ മനോഹരമാണ് രണ്ട് സ്ഥലങ്ങളും